റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്നു പറയുമ്പോൾ നമ്മൾക്ക് നമ്മളുടേതായ അളവിലായിരിക്കില്ല സ്റ്റിച്ച് ചെയ്ത് വരുന്നത് എല്ലാം ഒരു ഒരു നോർമൽ അളവായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതലും നമ്മളിപ്പം എല്ലാവരും പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മൾക്ക് തയ്ച്ച് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതാവുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനും നമ്മളുടെ മോഡലിനും നമ്മളുടെ ശരീരത്തിൻ്റെ അളവിനും അനുസരിച്ച് കറക്ട് ഫിറ്റിങ്ങിൽ നമുക്ക് ഡ്രസ്സ് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലും ആൾക്കാർ സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത് തുന്നി നമ്മൾക്ക് റെഡിമെയ്ഡാല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം അപ്പോൾ നമുക്ക് ഇപ്പോഴൊരു വനിതയിൽ ഏതെങ്കിലും ഒരു ചുരിദാറിൻ്റെ ഫോട്ടോ കണ്ടു അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്നു പറയുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും അപ്പം നമുക്ക് ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് അതിൻ്റെ തുണി എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ചിലപ്പം തുണികൾക്കൊക്കെ അത്രയും വലിയ വില ഉണ്ടാവത്തില്ല പക്ഷേ സ്റ്റിച്ച് ചെയ്ത് വിപണിയിൽ റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാശ് ചിലപ്പം നമുക്ക് റെഡിമെയ്ഡിന് കൊടുക്കേണ്ടി വരികയും ചെയ്യും നമ്മൾക്ക് കറക്ട് ഫിറ്റിങ്ങും ആയിരിക്കില്ല പിന്നെയും നമ്മുടെ അത് ആൾട്ടർ ചെയ്യാൻ നടക്കേണ്ടി വരും അതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള തുണിയെടുത്ത് കളർ കോമ്പിനേഷനിൽ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കൂടുതലും നല്ലത് അതുകൊണ്ടാണ് എല്ലാവരും കൂടുതലായിട്ടും ഇപ്പോൾ തുന്നി സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് റെഡിമെയ്ഡ് വാങ്ങാതെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡലിൽ ഇപ്പോൾ ഏത് ഇപ്പോൾ ഇപ്പോഴത്തെ കാലം എന്നു പറയുകയാണെങ്കിൽ പുതിയ പുതിയ മോഡലുകളുടെ കാലമാണ് ഇപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ഒരെണ്ണം വാങ്ങി ഇടുകയാണെങ്കിൽ ചിലപ്പം അതെല്ലാവർക്കും ഒരുപോലെ

അപ്പോൾ റെഡിമെയ്ഡ് ഒരാൾക്ക് തന്നെയല്ലല്ലോ ഒരാൾ തന്നെയല്ലല്ലോ വാങ്ങുന്നത് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നതല്ലെ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ വരും ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കിഷ്ടപ്പെട്ടത് നമ്മൾ നമ്മുടേതായ മോഡലിൽ തയ്യിക്കുകയാണെങ്കിൽ അത് നമുക്ക് മാത്രമായിട്ട് കിട്ടുകയും ചെയ്യും ഒരു വ്യത്യസ്തതയുണ്ടാവും എല്ലാത്തിൽ നിന്നും റെഡിമെയ്ഡിൽ നിന്ന് എന്തുകൊണ്ടും നല്ലത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് തന്നെയാണ്